ഹലോ ഊബർ ബുക്കിംഗ് സെന്റര് അല്ലേ ആ എന്റെ പേര് ആഷ്ന എന്നാണെ ഞാനിന്ന് വൈകിയിട്ടത്തേക്ക് അവിടെ നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തായിരുന്നു എനിക്കു കോട്ടയം വരെ ഒന്നു പോകാന് ആ അപ്പോൾ എനിക്കിന്ന് ആ ടാക്സി വേണ്ട കേട്ടോ എനിക്ക് ഒരു അത്യാവശ്യം ഇവിടെ വന്നു അപ്പോൾ ഞാനിന്നു പോകുന്നില്ല ഞാനൊരു അഞ്ച് മണിക്കത്തേക്ക് ആണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്ക് ഇന്നത് വേണ്ട അപ്പോൾ ഞാന് അഡ്വാൻസ് അടച്ചായിരുന്നു പൈസ അപ്പോൾ അത് എനിക്കു തിരിച്ചു തരണം അല്ല ഞാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് തരണമല്ലോ ഗൂഗിൾ പേ ചെയ്താൽ മതിയായിരിക്കും ഗൂഗിൾ പേ ചെയ്താൽ മതി ഗൂഗിൾ പേയോ അല്ലെങ്കില് പേ റ്റി എം പേയോ അങ്ങനെയെന്തെങ്കിലും പേ ചെയ്താൽ മതി നേരിട്ട് തരണമെന്നില്ല ഞാന് ആ ബാങ്കിന്റെ അതൊക്കെ അയച്ചു തരാം വൈകുന്നേരം ഒരു നാലുമണിക്ക് മുൻപേ റീഫണ്ട് ചെയ്യണം കാരണം ഒരുപാട് സമയം ഒന്നും വേണ്ടല്ലോ ഇപ്പം ഞാന് രണ്ട് മണി അല്ലേ ആയുള്ളൂ ഞാന് വിളിച്ചു പറഞ്ഞല്ലോ അപ്പോൾ പെട്ടെന്നു തന്നെ റീഫണ്ട് ചെയ്യണം എനിക്കിന്ന് പോകാന് അത്യാവശ്യം ഇല്ലാത്തതു കൊണ്ടല്ല ഞാന് പോകണം എന്നു വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോൾ എനിക്കിവിടെ ഒരു ഡ്യൂട്ടി വന്നതു കൊണ്ട് എനിക്കിന്ന് പോകാന് പറ്റത്തില്ല നിങ്ങളുടെ സമയം ഞാന് കളഞ്ഞില്ലല്ലോ ഞാന് നേരത്തെ വിളിച്ചു പറഞ്ഞില്ലേ പോകുന്നില്ലെന്ന് അപ്പോൾ എന്റെ പൈസ എനിക്ക് തിരിച്ചു തരണം അത് പേ റ്റി എം ചെയ്താൽ മതി ഞാന് അക്കൗണ്ടിൻ്റെ പാസ്വേര്ഡ് ഒക്കെ അയച്ചു തരാം ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി ഫെഡറല് ബാങ്കിൽ ആ ബാക്കി ഡീറ്റയില്സ് ഒക്കെ ഞാന് അയച്ചു തന്നേക്കാമേ